ഇപ്പോൾ വയനാട് ജില്ലയിലെ പ്രധാനമായിട്ടുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ അടുതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബാണാസുര സാഗറാണ് അപ്പം അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാം ആണ് അപ്പം അവിടത്തെ ഡാമിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളവും പിന്നെ അവിടെ നമുക്ക് തൊട്ടപ്പുറത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം പിന്നെ ഡാമിലൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം അവിടെയുണ്ട് അപ്പോൾ ബാണാസുര സാഗറ് നല്ലൊരു എന്താ പറയാ വിനോദ സഞ്ചാര കേന്ദ്രമായിട്ടാണ് ഇപ്പം ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്തേക്കുന്നത് പിന്നെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഫാന്റം റോക്ക് എന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് അതൊരു അതായത് വലിയൊരു മലേൻറ്റെ മേളിൽ നമ്മൾ വലിയൊരു പാറേൻറ്റെ മേളിൽ നമ്മൾ എന്താ പറയാ പോയി കണ്ട് കഴിഞ്ഞ് നല്ല ആ ഒരു ചുറ്റുപാട് മുഴുവൻ നമുക്ക് അതിലൂടെ വിസിബിൾ ആവുന്ന ഒരു കാഴ്ചയാണുള്ളത് പിന്നെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അണക്കെട്ടുകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മളിവിടെ അണക്കെട്ടുകളെന്ന് പറഞ്ഞാൽ കുറെ അധികം അണക്കെട്ടുകളുണ്ട് പിന്നെ അതായത് പിന്നെ കരാപ്പുഴ ഡാമ് അതൊക്കെ ഒരണക്കെട്ടായിട്ടാണ് ഉള്ളത് പിന്നെന്നു പറഞ്ഞാൽ പൂക്കോട് ലേക്ക് അതായത് നമ്മളൊരു ഒരു തടാകമാണ് അതിനകത്തുക്കൂടെ ബോട്ടിങ് യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ട് ബോട്ടിങ് കാര്യങ്ങൾ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വയനാട്ടിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ